വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ എൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കാത്തവരായി ഇപ്പോൾ ആരും ഉണ്ടായിരിക്കുന്നില്ല ഈയൊരവസ്ഥയിൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷതാ മുൻകരുതലുകൾ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആണെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതിയിലല്ലാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് പലപ്പോഴും അപകടങ്ങളുണ്ടാകുന്നത് സ്ഥിരം വാർത്തയായി മാറുന്നുമുണ്ട് ആയതിനാൽ വീട്ടിൽ പാചകം ചെയ്യപ്പെടുമ്പോൾ ചെയ്യാൻ ശ്രദ്ധിക്കപ്പെ ചെയ്യുമ്പോൾ പി ജി സിലിണ്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ താഴെപ്പറയുന്ന കാര്യങ്ങൾ എല്ലാവരും സുരക്ഷാ മുൻകരുതലുകളായി എടുക്കണം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഓൺ ഓഫ് നോബ് എപ്പോഴും പ്രവർത്തന സജ്ജമാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം ഉദാഹരണത്തിന് ഒരു വലിയ ഇടിയും കൊള്ളിയാനുമുള്ളൊരു സമയത്ത് ഇല്ലെ ഇതിൻ്റെ ഓൺ ഓഫ് നോബ് നമ്മൾ ശരിക്കും മനസിലാക്കി ഓഫ് ആക്കി ഇടണം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈയൊരു സംഭവം ഒരു ഇടിയും കൊള്ളിയാനും വരുന്ന സമയത്ത് ഇത് ഓൺ ആയിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊരു സ്പാർക്ക് ഉണ്ടായി അത് കത്താനോ പൊട്ടിത്തെറിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ട്യൂബ് ആണ് ഗ്യാസിൽ കുറ്റിയിൽ നിന്നും ഇല്ലേൽ എൽ പി ജി സിലിണ്ടറിൽ നിന്നും ഗ്യാസിൻ്റെ സ്റ്റൌവ്വിയിലേക്ക് അല്ലെങ്കിൽ ബർണറിലേക്ക് ഗ്യാസ് എത്തുന്ന വഴിയാണ് ട്യൂബ് ഈ ട്യൂബിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കാരണം അത് മണത്തിൽ കൂടെ വാസനയിൽ കൂടെ അത് അറിയാൻ പറ്റും ആ ഒരു സെറ്റപ്പ് സന്ദർഭത്തിൽ നമുക്ക് എന്തെങ്കിലുമൊരു മണം പുറത്ത് ലീക്ക് വന്നുകണ്ടുകഴിഞ്ഞാൽ ഉടനെ ഗ്യാസ് ഓഫാക്കി സ്വിച്ചുകളെല്ലാം ഓഫാക്കി പറ്റുന്നത്രയും വായു സഞ്ചാരം ഒരുക്കി കൊടുത്ത് അവിടെയുണ്ടായ ആ ലീക്കിനെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് പിന്നെ സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ ബർണർ എപ്പോഴും ശുചിയാക്കി വെയ്ക്കുക എന്നുള്ളതാണ് ബർണർ ശുചിയാക്കി വെച്ചില്ലെങ്കിൽ അതിന് അതിൽ മറ്റുള്ള വസ്തുക്കൾ അടിഞ്ഞുകൂടുകയും അതിന് ഗ്യാസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതാകുകയും അത് മറ്റുള്ള ദൂഷ്യവശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ഇത് ചെയ്യുന്ന കാര്യം ഇനി സിലിണ്ടറ് ഗ്യാസ് പുതിയതായിട്ട് എടുക്കുമ്പോൾ അതിനെ സിലിണ്ടർ നമ്മുടെ സിലിണ്ടറുമായി ഘടിപ്പിക്കാൻ ഈ ട്യൂബിനെ സിലിണ്ടറുമായി ഘടിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ലീക്ക് ഉണ്ടാകാതെയോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് കരടിരിക്കാതെയോ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് അതിന്റേതായ രീതിക്കുതന്നെ നോബ് ഞെക്കി ഓഫ് ഓഫാണെന്ന് ഉറപ്പു വരുത്തി നോബ് ഞെക്കി അതിനെ ബന്ധിപ്പിക്കേണ്ടതാണ് അങ്ങനെ ബന്ധിപ്പിച്ച് ൽ ഇന്ന് എന്ത് എന്തെങ്കിലും സംഭവത്തിലെപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഒരു ലീക്ക് മണം വഴി അറിയാൻ പറ്റുകയാണെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് ഉള്ള ഇലക്ട്രിക് സ്വിച്ചുകളെല്ലാം ഓഫാക്കുകയും പരമാവധി വായുസഞ്ചാരം ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ നോക്കുകയും ചെയ്തതിനുശേഷം ഉടനെ അതിൻ്റെ ബന്ധ് ബന്ധപ്പെട്ട ഏജൻസികളെ വിളിച്ചുവരുത്തി അത് ശരിയാക്കുകയും ചെയ്യേണ്ടതാണ്